ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ അവർക്ക് സുഖമാണോ എന്ന് ചോദിക്കുക ചോദിക്കും അവർക്ക് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം നമ്മൾ നോക്കിയിട്ട് അവർക്ക് ഒരു അവരെ അവർക്ക് നമസ്കാരം ചെയ്ത് ക്ഷമ ചോദിച്ച് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്നതിന് നമ്മൾ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും അവർ മുതിർന്നവരോടും ബഹുമാനത്തോടെ പെരുമാറുവാനും നമ്മൾ ശ്രദ്ധിക്കുന്നു അത് തേൻ ദിവസം നമ്മൾ ഓരോ ആൾക്കാരോടും സഹകരിക്കുന്ന രീതിയിൽ സഹകരിച്ച് മുന്നോട്ടു പോകുവാൻ നോക്കണം ചേട്ടനായാൽ സഹോദരന്മാരോട് സർവോപരികളോട് ബന്ധുമിത്രാതികളോട് സ്നേഹത്തോടെ ജീവിക്കുവാൻ അവരോട് സഹകരിക്കുവാനും നമ്മൾ സഹകരിക്കണം പച്ചക്കറികളാണെങ്കിൽ വെണ്ടയ്ക്ക കത്തിരിക്ക തക്കാളി ഇങ്ങനെയുള്ള പല പല വിധ സാധങ്ങങ്ങളും നമ്മൾ നിത്യേനെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മരങ്ങളും ചെടികളും കൊണ്ട് നമ്മൾ നമ്മളുടെ സ്ഥലങ്ങളും ഇതുകളും നോക്കുന്നു ഉടുപ്പുകളും തുണിത്തരങ്ങളും നമ്മൾ വാങ്ങുന്നു അതുപയോഗിക്കുന്നു അതുപോലെ നമ്മളുടെ സഹോദരങ്ങളോടും മുത്തശ്ശിയോടും നമ്മൾ മുത്തശ്ശിമാരെ ബഹുമാനിക്കാനും അവരോട് സഹരിക്കുവാനും വേണ്ട അത് നമ്മൾ ചെയ്യുന്നു മുത്തശ്ശന്മാരോട് സഹകരിക്കുന്നു അങ്ങനെ പല രീതിയിലും നമ്മൾ അവരോടു പെരുമാറുന്നതന് അനുസരിച്ചു നമ്മളുടെ ജീവിതം ദൈനംദിനമായിട്ടു കൊണ്ടു പോകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു നമ്മളുടെ ഭാഷകളിൽ പറഞ്ഞാൽ മറ്റുള്ളവരോട് ബഹുമാനത്തോട് ജീവിക്കുന്നതാണ് മറ്റുള്ളവരോട് അവരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുക സഹായിക്കുവാൻ നമ്മൾക്ക് സഹായിക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ അത് പല രീതിയിലും സഹായമായിരിക്കും അങ്ങനെ നമ്മൾ ഓരോരുത്തരോടും സ്നേഹത്തോടും സഹകരണത്തോടും പെരുമാറുവാനും അവരോട് സഹകരിക്കുവാനും നമ്മൾ തുടരുന്നു അച്ഛനമ്മമാരോട് നമ്മുടെ അച്ഛനേയും അമ്മയേയും ബഹുമാനിക്കുവാനും അവരോട് സഹകരിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമ്മൾ മുതിർന്നവരായി നമ്മളുടെ സഹകരണം വഴി നമ്മൾ അവരോട് സഹകരിക്കുവാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നു മരങ്ങളും ചെടികളും പച്ചക്കറികൾ വെണ്ടയ്ക്ക തക്കാളി കത്തിരിക്ക അങ്ങനെയുള്ള സാധനങ്ങൾ നിത്യോപയോഗത്തിനായി നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അതുപോലെ ഉടുപ്പുകളും തുണികളും നമ്മൾക്ക് നിത്യേനെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സാധിക്കുവാൻ പറ്റുന്ന സാധനങ്ങളാണ് സഹോദരന്മാരോട് സഹോദരങ്ങളെ സഹോദരങ്ങളായി കാണുവാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാനും നമ്മൾ സഹകരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അവരോട് നല്ല രീതിയില് സംഭാഷണം ചെയ്യുവാൻ വേണ്ട എല്ലാ എല്ലാ രീതിയിലും നമ്മൾ പെരുമാറുവാൻ പെരുമാറുന്നവരായിരിക്കണം അങ്ങനെ ആ മുന്നോട്ടു പോകുമ്പോൾ നമ്മളുടെ അവർ ഒരു വിഷമത്തോടെയോ പ്രയാസത്തോടെയോ ഇരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് ചോദിക്കുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് നല്ല നല്ല മനസ്സോടെ അവരോട് പെരുമാറുവാനും വേണ്ട എല്ലാ വിധം നമ്മൾക്ക് നിത്യേനെ ഉണ്ടായിരിക്കേണ്ടതാണ്